ബൈക്ക് ഓടിച്ചുതുടങ്ങുന്നവർക്കു സംഭവിക്കാറുള്ള ഏറ്റവും ചില തെറ്റുകളെക്കുറിച്ചു പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഗിയര് മാറ്റാൻ അറിയാതിരിക്കുക എന്നുള്ളതാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ ഗിയര് മാറ്റിത്തുടങ്ങുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഇത് ബൈക്ക് ഓടിച്ചുതുടങ്ങുന്നവർക്ക് എപ്പോഴും പിഴവു പറ്റാവുന്ന ഒരിടമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നാല് ഗിയറോ അല്ലെങ്കിൽ മൂന്ന് ഗിയറോ ഉള്ള വണ്ടിയിൽ വേണം നമ്മൾ പഠിക്കാൻ അല്ലാതെ ഏതെങ്കിലുമൊക്കെ പഴയ പൊളിഞ്ഞ ബൈക്കിൽ പഠിക്കുന്നത് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അതുകൊണ്ടുതന്നെ ഇനി മുതൽ ഗിയര് മാറ്റുമ്പോൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതുപോലെ ബൈക്ക് ഓടിച്ചുതുടങ്ങുമ്പോള് പിന്നെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണു നമ്മൾ ശ്രദ്ധിക്കാതെ റോഡിലൂടെ വണ്ടിയോടിക്കുക എന്നുള്ളത് അഥവാ നമ്മൾ ഗിയര് മാറ്റുമ്പോൾ ഗിയറിലേക്കു നോക്കുക അല്ലെങ്കിൽ ഹാൻഡ്സ് ആക്സിലേറ്റർ കൂട്ടുമ്പോൾ ആക്സിലേറ്ററിലേക്കു നോക്കുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മള മുന്നിൽ വരുന്ന വണ്ടികൾക്ക് അപകടം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായേക്കാം കർശനമായി പാലിക്കേണ്ട ചില നിയമങ്ങളുമുണ്ട് അഥവാ നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ തൊട്ടുമുമ്പിൽ സീബ്ര ക്രോസിങ് കാണുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടി നിർത്തിക്കൊടുക്കണം കാരണം ഒരുപക്ഷേ സ്കൂൾ കുട്ടികൾക്കോ മറ്റു വഴിയാത്രക്കാർക്കും അതിലൂടെ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ഒരു ദിവസം രാവിലെ സ്കൂൾ വിടുന്ന സമയം സ്കൂളിലേക്കു വിദ്യാർത്ഥികൾ പോകുന്ന സമയത്തു ഞാൻ പോകുമ്പോൾ എൻ്റെ മുന്നിലൂടെ ഒരുപറ്റം വിദ്യാർത്ഥികൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതുകണ്ട് അവർക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവിടെ എൻ്റെ കടമയാണ് എൻ്റെ വണ്ടി നിർത്തി വിദ്യാർത്ഥികൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി ഞാൻ ഏകദേശം രണ്ട് മിനിറ്റോളം എൻ്റെ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് സിഗ്നലുകൾ കൃത്യമായിട്ടു പാലിക്കുകയും ചെയ്യണം അല്ലാത്ത പക്ഷം ഒരുപക്ഷെ നമുക്ക് അപകടങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെയാണ് നമ്മുടെ റോഡ് സംവിധാനങ്ങളിൽ ശാസ്ത്രീയവും സാങ്കേതികപരമായിട്ടുള്ള ട്രാഫിക് സിഗ്നലുകൾ ഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലിമിറ്റഡ് സ്പീഡ് റോഡുകളുമുണ്ടാകും ഈ റോഡിൽ ഇത്ര സ്പീഡിലേ പോകാൻ പറ്റു എന്ന് പറഞ്ഞാല് നമ്മൾ ആ റോഡിൽ അത്ര സ്പീഡിലേ പോകാൻ പറ്റുകയുള്ളൂ അല്ലാതെ വളവുകളും കുന്നുകളുമുള്ള റോഡുകളാണെങ്കിൽ മിനിമം ഒരു നാൽപത് ടു അന്പത് കിലോ മീറ്ററിൻ്റെ അപ്പുറത്തേക്കുള്ള വേഗതയിൽ നമുക്കു പോയാൽ കൃത്യമായിട്ടുള്ള ആക്സിഡന്റുകളും അപകടങ്ങളും വിളിച്ചു വരുത്താനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ് അതും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ അതു നമ്മുടെ ജീവനായിരിക്കും ആപത്തായിട്ടു വരിക ഓരോ ബൈക്ക് യാത്രക്കാരനും തൻ്റെ ജീവിതം കൊണ്ടാണു യാത്ര ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അതു കൃത്യമായിട്ടു ശ്രദ്ധിക്കണം ഒരിക്കല് ഞാൻ ഊട്ടിയിൽനിന്ന് മൈസൂരിലേക്കു പോകുന്ന വഴി എൻ്റെ തൊട്ടുമുമ്പിലൊരു കരടി ചാടി ഞാൻ വളരെ വേഗത്തിലായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ മീറ്റർ പെർ ഹവർ സ്പീഡിലായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ഭാഗ്യത്തിനാണ് എൻ്റെ വണ്ടി വീഴാതെയും എൻ്റെ ജീവൻ എനിക്കു തിരിച്ചുകിട്ടിയതും അന്നു ഞാൻ ഹെൽമെറ്റ് ഇടുകയും മറ്റ് ആവശ്യകരമായിട്ടുള്ള മുൻകരുതൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൃഗങ്ങൾക്കു ബുദ്ധിയില്ലല്ലോ അവര് നമ്മുടെ മുന്നിലേക്കു ചാടുമ്പോള് ബുദ്ധിയുള്ള നമ്മളല്ലേ കാര്യക്ഷമമായിട്ടു കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ ബൈക്ക് യാത്രയും ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങള്കൊണ്ട് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചുകിട്ടി